ഗ്രാമപ്രദേശങ്ങളില് ഇപ്പോൾ സാങ്കേതിക മേഖല ഒരുപാട് വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് ഇപ്പോൾ ഉൾ പ്രദേശങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും വൈദ്യുതി ലഭിക്കണം എന്നില്ല അതുപോലെതന്നെ ഇപ്പോൾ നോക്കുകയാണ് വെച്ചാൽ ഇപ്പോൾ ഗതാഗത മാർഗ്ഗങ്ങളൊക്കെ ഒരുപാട് ദുഷ്കരമാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നോക്കുകയാണ് വെച്ചാൽ ഇപ്പോൾ എങ്ങനെയാണ് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാ വീടുകളും വൈദ്യുതി ഉണ്ടാവില്ല അതുപോലെ തന്നെ ചെറിയൊരു മഴയിലോ കാറ്റിലൊക്കെ ആയിരിക്കാം എന്താ സംഭവിക്കുക വൈദ്യുതി കറണ്ട് ഇല്ലാതാവുകയും പിന്നെ രണ്ടു മൂന്നു ദിവസം കഴിഞ്ഞിട്ടൊക്കെയായിരിക്കും കറണ്ട് വരുക അപ്പോൾ അങ്ങനെ ഗ്രാമപ്രദേശങ്ങളില് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്